എനിക്ക് കോഴി വളർത്തൽ മാത്രമേ ഇപ്പം നിലവിലുള്ളൂ അത് എന്നാന്ന് ചോദിച്ചാൽ അതിനുള്ള ചുറ്റുപാടെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളു ഒരു രണ്ട് പശുക്കളെ വളർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനുള്ള ഈ പറമ്പും കാര്യമൊന്നും നമുക്കില്ല ഒന്ന് അഴിച്ചു കെട്ടാനോ അവ അങ്ങനെ ഉള്ള സൗകര്യങ്ങളൊന്നുമില്ല അത്കൊണ്ട് ഈ കോഴി വളർത്തൽ കൊണ്ട് തന്നെ പിന്നേ കൃഷിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ കുടുംബം പുലരുന്നു പി ഈ കോഴി വളർത്തൽ കൊണ്ട് നമുക്കൊന്നും തന്നെ ആകേല പിന്നെ ഒരു ചെറിയ വരുമാന മാർഗ്ഗം ആകുമെന്ന് മാത്രമേ ഉള്ളു ഈ ഇപ്പോൾ ഒരു കുടുംബശ്രീയ്ക്ക് ആണെങ്കിലും പോകണമെങ്കിൽ ഒരു പത്ത് മുട്ടയുണ്ടെങ്കിൽ ആ പത്ത് മുട്ട കൊടുത്തേച്ച് പോയാലും നമുക്ക് ഒരാഴ്ചത്തെ പൈസാ കുംടുംബശ്രീയിൽ അടയ്ക്കാൻ പറ്റും അങ്ങനെ ഒരു ചെറുകിട വ്യവസായ ഒരു അങ്ങനെ ഒരിത് മാത്രമാണ് നമുക്ക് ഈ കോഴി വളർത്തൽ കൊണ്ട് ഉണ്ടാ ഉണ്ടാകുന്നുള്ളു പിന്നെ ഈ ചില സമയത്ത് കോഴി വസന്ത വന്ന് കഴിയുമ്പോൾ പല ഭയങ്കരമായിട്ട് കോഴി വളർത്തൽ നമുക്ക് നഷ്ടമായിട്ട് തീരും ആ ഈ ഒ ഒരു കോഴിയ്ക്ക് വസന്ത വന്നാൽ പിന്നെ നമ്മളുടെ ആ സർക്കാരറിഞ്ഞാൽ ആ കോഴിയില്ലേ കൂട്ടിൻ്റെ കൂട്ടിലുള്ള എല്ലാത്തിനെയും കൊല്ലും അപ്പോൾ അതും നമുക്ക് നഷ്ടമാണ്